ഇപ്പോൾ ഏറ്റവും കൂടുതല് ഉപയോഗിക്കുന്ന ആപ്പുകൾ വാട്ട്സപ്പ് ഇന്സ്റ്റഗ്രാം ഇത് രണ്ടും ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ പിന്നെ സ്പാർട്ട് സ്മാര്ട്ട് ഫോണിന്റെ ഗുണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഇപ്പോൾ ലോകത്തിൻ്റെ എവിടെ നടക്കുന്ന കാര്യങ്ങള് നമുക്ക് പെട്ടെന്ന് അറിയാന് പറ്റും പണ്ടൊക്കെ ഒരു വേഡ് മീനിങ് നോക്കുകയാണെങ്കിൽ ഡിക്ഷ്ണറി എടുത്ത് നോക്കണമായിരുന്നു പിന്നെ നമ്മുടെ ഡിക്ഷ്ണറി ഇല്ലായെന്നുണ്ടെങ്കിൽ അടുത്ത് വേറെയൊരു ഡിക്ഷ്ണറി നോക്കണം ഇപ്പോൾ അങ്ങനെയൊരു പ്രയാസം ഇല്ല ഗൂഗിളില് ഒന്ന് സര്ച്ച് ചെയ്താല് മതി അപ്പോഴേക്കും ഇമേജ് അടക്കം നമുക്ക് അതിൻ്റെ ഡീറ്റെയില്സ് കിട്ടും അങ്ങനെയുള്ള ഒരുപാട് നല്ലകാര്യങ്ങളുണ്ട് പിന്നെ ഇപ്പോൾ ആ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതലുപയോഗം വരുന്നത് ഒരു സ്ഥലത്ത് നമുക്ക് ഏതെങ്കിലുമൊരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുഗിളില് സെര്ച്ച് ചെയ്ത് ആ സ്ഥലത്ത് പോകാന് പറ്റും അത് ഭയങ്കര ഒരു എളുപ്പമുള്ള കാര്യമാണ് മറ്റേത് നമ്മളൊരുപാട് പേരോട് ചോദിച്ചു ചോദിച്ചു പോകേണ്ട ഒരു ആവശ്യം വന്ന് ഇപ്പോൾ പക്ഷെ അതൊക്കെ വളരെ യുസ്ഫുള്ലായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ദോഷങ്ങൾ ആ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ അത് അടിക്റ്റ് ആയി പോകുന്ന സിറ്റുവേഷന് ഉണ്ട് പിന്നെ മുതിര്ന്നവരും അത് മിസ്സ് യുസ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുടെ ദോഷത്തിനു വേണ്ടിയിട്ടു നല്ലകാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് അതിപ്പോൾ എല്ലാ വസ്തുക്കള്ക്കും ഉള്ളതുതന്നെ ഒരു നല്ല വശവും ഉണ്ടാകും ചീത്ത വശവും ഉണ്ടാകും ചിലർ ആ ചീത്തവശം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു